പാട്ട് പാടുന്നതിനുവേണ്ടിയിട്ട് ദിവസത്തില് ഒരുപാട് സമയമൊന്നും മാറ്റി വയ്ക്കാറില്ല ഒരു പത്തിരുപത് മിനിറ്റൊക്കെയേ ഉള്ളു പിന്നെ ജോ അടുക്കളയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചെറിയ ചെറിയ പാട്ടുകള് പാടും പിന്നെ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥിക്കുമ്പോള് പ്രാർത്ഥന കഴിഞ്ഞിട്ടും പാട്ടുപാടുന്നു പാട്ടുപാടും പിന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാന് ഒരുപാട് പാടാനൊന്നും അറിയില്ല അറിയാവുന്ന രീതിയില് നല്ല നല്ല പാട്ടുകളെല്ലാം പഠിച്ചിട്ട് പാടും പാട്ട് പഠിക്കുന്നത് പുസ്തകങ്ങളില് ബുക്കുകളിലൊക്കെ നോക്കും പിന്നെ മൊബൈൽ വഴി കേട്ടുപഠിക്കും പിന്നേ മറ്റുള്ളവർ പാടുന്നതു കേൾക്കുമ്പോള് അത് പിന്നെ റെക്കോർഡ് റെക്കോർഡ് വഴിയായിട്ട് അങ്ങനെ പിന്നേ റ്റി വിയിലൊക്കെ പിള്ളേരുട മത്സരങ്ങളൊക്ക പാട്ടിൻ്റെ പാട്ടുപാ അത് മത്സരങ്ങളൊക്കെ കണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അതു കാണും അങ്ങനെ അങ്ങനെ പാട്ടുപാടിക്കും പിന്നെ ക്രിസ്ത്യൻ പാട്ടിനോടാണ് കൂടുതല് താൽപ്പര്യം പ്രാർത്ഥിക്കുന്നതിന് മുൻപും പ്രാർത്ഥനയുടെ സമയത്തും നല്ല നല്ല പാട്ടുകൾ പാടും പിന്നെ വെറുതെ ഇരിക്കുമ്പോള് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നേ സമയങ്ങളിൽ മറ്റുള്ളവരുവായിട്ടൊക്കെ ഒരുമിച്ചിരിക്കുമ്പോഴത്തേ ഒരുമിച്ചൊക്കെ കൂടിയിരിക്കുമ്പോള് അക്ഷരശ്ലോകം ചൊല്ലി അങ്ങനെ പാട്ടുകള് അങ്ങനെ എല്ലാവരുമായിട്ട് കുട്ടുകാര് കൂടിയിട്ട് പാട്ടുപാടും അങ്ങനെ പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ് പാടുന്നവരെയും ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പാടാനൊന്നും അറിയത്തില്ല ഒരത്യാവശ്യം അല്പസ്വൽപമൊക്കെ പാട്ട് പാടും പക്ഷേ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാട്ട് പാടുന്നവരെ അതിലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു പത്തിരുപത് മിനിറ്റൊക്കെ പാട്ടിനുവേണ്ടിയിട്ട് പാടുന്നതിനും പാട്ട് കേൾക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കാറുള്ളു പിന്നെ റ്റി വിയില് പിള്ളേരുടെ സോങ് മത്സരങ്ങള് അതു കാണും അതു കേൾക്കും അത് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റാണ് അതിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടാണ് പഠിക്കുന്നത് പിന്നെ മറ്റുള്ളവര് പാടുന്നത് പിള്ളേരൊക്കെ വീട്ടില് പാടുമ്പോള് അവര് പാടുന്നത് കേട്ടുപഠിക്കും പിന്നെ മൊബൈല് വഴി പാട്ട് കേട്ട് പഠിക്കും പിന്നെ പുസ്തകങ്ങള് പാട്ട് ബുക് ബുക്സൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നും കുറച്ചൊക്കെ പഠിക്കും അങ്ങനെ അങ്ങനെയാണ് കൂടുതലും കേൾക്കുന്നത് പഠിക്കുന്നത് പിന്നെ എല്ലാവരുംകൂടെ കൂട്ടുചേർന്ന് കൂട്ടുകാരികൾ എല്ലാ എല്ലാവരുമായിട്ടിരിക്കുമ്പോള് പാടുന്നുണ്ട് അങ്ങോട്ട് പാടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന പാട്ടുകള് പരസ്പരം പാടി ഒരു ചെറിയൊരു എല്ലാവരുംകൂടെ ഒരുമിച്ചിരിക്കുമ്പോള് ചെറിയൊരു മത്സരം എന്ന രീതിയില് വെറുതെ ഞങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാടും വീട്ടിലൊക്ക നേരത്തേ സൗഹോദരളെല്ലാം ഒ ഉള്ള സമയത്ത് രാത്രിയിലക്കെ ഇരുന്ന് ഞങ്ങള് ഒരുമിച്ച് അങ്ങോട്ടും ഒരു മത്സരം പോലെ ആര് നല്ലവണ്ണം പാടും അല്ലെങ്കില് കൂടുതല് പാട്ട് പാടുന്നാ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മത്സരമായിട്ട് ചെറിയ തോതിലുള്ള മത്സരമായിട്ട് കുടുംബാംഗങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പാടുമായിരുന്നു പാടിയിട്ടുണ്ട് അതൊക്ക ഭയങ്കര ഇഷ്ടമാണ് പാടുന്നതിനെ കഴിഞ്ഞും പാട്ടു കേൾക്കുന്നതും പാടുന്നവരെയാണ് കൂടുതലും താല്പര്യം പാട്ട് പാടുന്ന വ്യക്തികളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാട്ട് കേൾക്കാൻ ഭയങ്കര താൽപര്യമാണ് പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അതിന് അത് അതുപോലെയുള്ള ഒരുപാട് പാടാനായിട്ട് അറിയില്ലാത്തതുകൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പാട്ട് കേൾക്കുന്നുണ്ട് പ പാടുന്നുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന സമയത്ത് പാട്ട് പാട്ട് പാടും അതുപോലെ ഓരോ മരണത്തിനൊക്കെ പോകുമ്പോള് അതിൻ്റെതായിട്ടുള്ള പാട്ടുകള് അത് പാടാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം അറിയാം അതൊക്ക നല്ലോണം പാടും പിന്നെ റെക്കോർഡ് പരമായിട്ടാണ് കുടുതലും പാട്ട് കേൾക്കാറ് പിന്നെ മറ്റുള്ളവര് പാടുന്നതു കേട്ടും പഠിക്കും പാ പാട്ടിനോട് വലിയ ഒരുപാട് ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്നതും പാടുന്നതും എല്ലാം അതിനോട് വലിയ താല്പര്യമാണ് മ മറ്റുള്ളവര് പാടാൻ അറിയാവുന്ന വ്യക്തികളെ വിളിച്ചിരുത്തി പാടിച്ച് കേൾക്കുന്നതിനോട് നല്ല താല്പര്യമുണ്ട് പാടാനും ഇഷ്ടമാണ് പക്ഷേ ഒരുപാട് പാടാനറിയത്തില്ല പാട്ട് കേൾക്കാൻ അതിലും വലിയ താല്പര്യമാണ് പഠിക്കുന്നതും ഇതുവഴിയാണ്